പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക ഉത്സവം പറയുമ്പോൾ നമ്മളിപ്പോൾ വിഷു വിഷു വേലകളുണ്ടാകും ഓണത്തിന് ഓണത്തിൻ്റെ പരിപാടികളുണ്ടാവും പിന്നെ മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും അതിൻ്റെതായ ഉത്സവം ഇപ്പോൾ മണപ്പുള്ളിക്കാവ് വേല അതുപോലെ പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി വേല പിന്നെ നെന്മാറ വല്ലങ്ങി അങ്ങനെ അനേകം എല്ലാ മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും അതിൻ്റെതായ വിഷുവേലകളും പിന്നെ ഉത്സവങ്ങളും എല്ലാ പാലക്കാട് ഗ്രാമപ്രദേശങ്ങളും ഗ്രാമ ജില്ലയായതു കൊണ്ടുത്തന്നെ എല്ലാ അമ്പലങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഇവിടെ ഭയങ്കര പ്രാമുഖ്യം ഉള്ളതാണ് അതിൽ അനേകായിരം ആൾക്കാര് ഒരേ സമയം ഒരേപോലെ പങ്കെടുക്കും എല്ലാ കുടുംബങ്ങളിൽ നിന്നും പുറത്ത് പോയ ആൾക്കാരും ഇപ്പോൾ ൽ പുറത്ത് ജോലിക്ക് പോയത് അല്ലെങ്കിൽ പഠിക്കാൻ പോയ ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇവിടെ വരും കുടുംബങ്ങളും എല്ലാം ഒരുമിച്ച് അവർ ഒരുമിച്ചാണ് എല്ലാ ഉത്സവങ്ങൾക്കും പങ്കെടുക്കുക ഇപ്പോൾ വേലക്കാണെങ്കിൽ അതിൻ്റെതായ വെടിക്കെട്ട് ആനച്ചമയം ആനകളുണ്ടാകും പിന്നെ കാഴ്ചപ്പോരുണ്ടാകും മറ്റേ ലൈറ്റുകൾ പിന്നെ ഗാനമേള അങ്ങനെ പലവിധ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകും